മിസ്റ്റർ ദീപക് സാറാണോ സാറേ ലൈബ്രറിയുടെ ചാർജ്ജ് സാറിനാണോ സാറേ നമ്മള്ക്ക് ചെമ്മീൻ എന്നു പറയുന്ന ആ തകഴിയുടെ നോവല് എന്തേലും കിട്ടാൻ സാ സാധ്യത ഉണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് തകഴിയുടെ ചെമ്മീന് മ് മ് സാര് ഈ ബുക്ക് കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടോ സാറിന് അതിന് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടോ കാരണം ഈ ബുക്ക് വരുമ്പോള് വരിക പെട്ടെന്ന് പെട്ടെന്നു തന്നെ പോകുകയെന്നു പറയുന്നു സാറിന് വായിക്കാനുള്ള ഒരവസരം കിട്ടിയിട്ടുണ്ടോ ഈ ബുക്ക് അതെ അതെ ആ

സാറേ ന്യൂലി ന്യൂലി ഇപ്പോൾ ഈ കോപ്പി കൊണ്ടുപോയിരിക്കുന്നത് ആരാണെന്ന് പറയാവോ എനിക്ക് അടുത്തുള്ള എൻ്റെ സഹപാഠികള് ആരെങ്കിലും അല്ലെങ്കില് എന്റെ അയൽവാസികളാണെങ്കിൽ ഞാനദ്ദേഹത്തിൻ്റെ കൈയ്യിന്ന് ഒരു പെട്ടെന്ന് അല്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒന്ന് മേടിച്ചിട്ട് വായിച്ചിട്ട് അദ്ദേഹത്തിനു തന്നെ തിരിച്ചു കൊടുത്തോളാമായിരുന്നു ഓക്കെ ഓക്കെ

ഓഹ് ഓക്കെ

മ് മ് ഓകെ അതെ അതെ അതെ ആ സാറേ എനിക്ക് വലിയ ഉപകാ വളരെ വലിയൊരു ആഗ്രഹമാണ് ഞാനീ തകഴിയുടെ നേരത്തെ ഈ ചെമ്മീൻ എന്നുളള സിനിമ കണ്ടിരുന്നെ അപ്പോൾ ആ സിനിമ കണ്ടപ്പോള് മുതലേ എനിക്ക് ഒരാഗ്രഹമായിരുന്നു നേരിട്ട് സിനിമ കണ്ടെങ്കിലും സിനിമാക്കകത്ത് പ്രതിപാദിക്കുന്ന എല്ലാ ഭാഗങ്ങളും മറ്റും അല്ലെ ഈ അല്ലെങ്കില് നോവലില് പ്രതിപാദിക്കുന്ന എല്ലാ ഭാഗങ്ങളും സിനിമായിലില്ല സിനിമായ്ക്ക് പിന്നെ അതിൻറ്റേതായിട്ടുള്ള സമയവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ രണ്ടോ രണ്ടര മൂന്ന് മണിക്കൂര് കൊണ്ട് തീർക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഈ നോവലിന്ന് ഒപ്പിയെടുത്തിട്ടില്ല പ്രധാനപ്പെട്ട ചില കുറച്ച് ഭാഗങ്ങളുൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചെമ്മീൻ എന്നുള്ള സിനിമ ഉണ്ടാക്കിയിരിക്കുന്നേ അപ്പോള് എനിക്കാ ചെമ്മീൻ എന്ന നോവല് പൂർണമായിട്ടും വായിച്ച് അത് മനസ്സിലാക്കണമെന്നും തകഴിയുടെ ആ നോവലിനെക്കുറിച്ച് അറിയണമെന്നുള്ള ഒത്തിരി വളരെ ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലികള് അദ്ദേഹത്തിൻ്റെ സാ സാഹിത്യ രീതികള്

തീർച്ച അ തീർച്ചയായിട്ടും സാർ ഇനി മ് മ്

തീർച്ചയായിട്ടും സർ എനിക്കൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഞാനീ ബുക്ക് മുഴുക്കനും കംപ്ലീറ്റ് വായിച്ചോണ്ടും കാരണം അതിനുള്ള സമയം ആ ഞാൻ കണ്ടെത്തിയതിനു ശേഷമാണ് സാറിനോട് ഈ ബുക്ക് അവയിലബിലിറ്റി ഉണ്ടോ എന്ന് തന്നെ അന്വേഷിക്കുന്നത് എൻ്റെ വൈഫിനും ഒത്തിരിയേറെ താല്പര്യം ഉണ്ട് പക്ഷെ ബുക്കിൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാന് വൈഫിനോട് വൈഫിനെ കൂടെ വായിച്ചുകേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോള് ഒറ്റ സമയം കൊണ്ട് രണ്ടുപേർക്കും ഒരാൾക്ക് വായിക്കാനും ഒരാൾക്ക് കേൾക്കാനും കഴിയുകയാണെങ്കില് ഈ നോവലിനെക്കുറിച്ച് കൂടുതലറിയാനും അതിൻ്റെ സാഹിത്യ രീതികളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുമല്ലോ ഓക്കെ സാറേ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ സാറേ അപ്പോള് കിട്ടുന്നതിനനുസരിച്ച് എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് എന്നെ ഒന്ന് വിളിക്കണം കെട്ടോ സാറേ ഇതേ ഇതേ നമ്പര് ഇത് ഞാൻ വിളിച്ച നമ്പര് തന്നെയാണ് ഓക്കെ താങ്ക്യൂ സർ